ഹലോ അ അതെ എപ്പോഴാണ് വെഡ്ഡിങ് അതെ ഞങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്യും എ ടു സെഡ് കാര്യങ്ങൾ ചെയ്യും ആ അതെല്ലാം ഞങ്ങൾക്ക് തന്നെയുണ്ട് അത് നിങ്ങളുടെ ഓഡിറ്റോറിയത്തിന്റെ സൈസ് അനുസരിച്ചിരിക്കും

ആ എല്ലാം കൂടെ അപ്പോൾ ഒരു ഫൈവ് ലാക്ക് ആ ഫൈവ് ലാക്കിൻ്റെ അടുത്ത് വരും ഓ ക്വാളിറ്റി സാധനമായിരിക്കും ആ എല്ലാ ടൈപ്പുമുണ്ട് ഫുഡ് വെജ് ആണോ നോൺ വെജ് ആണോ അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആണോ ആ ഓക്കേ പിന്നെ ഫുഡിന്റെ ഡീറ്റെയിൽസ്

ഏത് കേട്ടില്ല ഒന്നുകൂടെ ആ ഓക്കേ അപ്പം സ്റ്റൂ അപ്പവും സ്റ്റൂ ഒക്കെ വേണ്ടേ ഓക്കേ പിന്നെ ക്യാമറ ഫോർ കെ ആണോ ത്രീ കെ ആണോ ആ ഫോർ ഓക്കേ ആ ഓക്കേ അല്ല രണ്ടും കൂടെയുണ്ട് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ എല്ലാമുണ്ട് ആ ഉണ്ടാവും ആ ആ ഓക്കേ ആ കല്യാണം എപ്പോൾ ആയിരുന്നു ഓക്കേ നമ്മളപ്പോൾ പ പതിമൂന്നാം തീയതി ഓഡിറ്റോറിയം ഫുൾ ഇതാക്കും വർക്ക് ചെയ്യും

ആ ഓക്കേ ആ ഓക്കേ